ഞാൻ എനിക്കേറ്റവുമിഷ്ടപ്പെട്ട ഒരു പാട്ട്കാരനാണ് എം ജീ ശ്രീകുമാർ എം ജീ ശ്രീകുമാർ തന്നെയല്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് യേശുദാസുണ്ട് വേണു ഗോപനുണ്ട് എങ്കിലും എം ജീ ശ്രീകുമാറിനെ കൂടുതലിഷ്ടപ്പെടാൻ കാരണം കൊച്ചുകുട്ടികളെ അങ്ങേര് പിന്നെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവരെ ആ ടെൻഷനിൽ നിന്നുമൊഴിവാക്കി അവരെ നല്ല ഇതാക്കിക്കൊണ്ടുവരാനാണ് അദ്ദേഹമിഷ്ടപ്പെടുന്നത് കാരണം ഞങ്ങൾ ചാനലിൽക്കൂടെ കാണുന്നതാണിത് കൊച്ചുകുട്ടികളെ അതുപോലെ നല്ല ഒരു സംഗീതകനാണ് എം ജീ ശ്രീകുമാർ അവരെ ഇഷ്ടപ്പെടാനും അതുകൊണ്ടുതന്നെയാണ് കാരണം കാരണം കൊച്ചുകുട്ടികളോടുള്ള അങ്ങേരുടെ പെരുമാറ്റം അവരുടെ ടെൻഷനൊഴിവാക്കി അവരെ നന്നായിട്ട് പാടിപ്പിക്കുകയും നന്നായിപ്പാടിക്കഴിയുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങൾ അവർക്ക് പറഞ്ഞുകൊടുക്കുകയും ചെയ്യും അതുകൊണ്ട് ആ പാട്ടുകാരനെ എനിക്കൊരുപാടിഷ്ടമാണ് അതുപോലെത്തന്നെ അങ്ങേർ ഇടപെടുന്നതും അതുപോലെ എല്ലാവരോടുമിടപെടുന്ന നല്ല രീതിയിലാണ് അതുപോലെ ഞാൻ കണ്ടിട്ടുണ്ട് ചില കൊച്ചു കുട്ടികൾക്ക് കുറച്ച് ഒരു അധികപ്രസംഗമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയും ഇങ്ങനെ സംസാരിക്കരുത് നിങ്ങൾ പിള്ളാരാണ് മുന്നോട്ട് പോകാനുള്ളവരാണ് അങ്ങനെയൊന്നും സംസാരിക്കരുത് ഒരു ഒട്ടും അഹങ്കരിക്കരുത് നിങ്ങൾ നിങ്ങൾ പാട്ടുകാരാണെന്നും പറഞ്ഞ് അതിൽ നിന്നും നിങ്ങൾ വലുതായിക്കഴിയുമ്പോഴും നിങ്ങളൊരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണം അതുകൊണ്ട് പാട്ടുകാരെന്നും പറഞ്ഞുകൊണ്ട് നല്ല ഇതായിട്ട് നടക്കരുത് കാരണം അവർ നല്ല പാട്ടുകാരായിട്ട് വിനയത്തോടേ മറ്റുള്ളവരോട് പെരുമാറാനും കൂടെ നിങ്ങൾ പഠിക്കണം എന്നദ്ദേഹം പറഞ്ഞുകൊടുക്കുമ്പോൾ ഞാനദ്ദേഹത്തെ ഒരുപാടിഷ്ടപ്പെടുന്നുണ്ട് അതുപോലെത്തന്നെ അങ്ങേർക്കൊരുപാട് പാട്ട് കിട്ടിയിട്ടുമുണ്ട് അങ്ങേരുടെ ചേട്ടൻ എം ജീ ശ്രീകുമാറിൻ്റെ ചേട്ടൻ സംവിധായകനും കൂടി ആയിരുന്നു നമുക്കൊരുപാട് പാട്ടും കിട്ടിയിട്ടുണ്ട് അതുപോലെ നല്ല നല്ല പുതിയ പുതിയ പാട്ടുകളും അങ്ങേർ പാടിയിട്ടുണ്ട് അങ്ങേരേ ഇഷ്ടപ്പെടാൻ അതുതന്നെയാണ് കാരണം കാരണം നമ്മളോട് അല്ലാതെ ആരു ചെന്നാലും ഇപ്പം പ്രായമുള്ളവർ ചെന്നാലും അദ്ദേഹം നല്ലപോലെ അവരെ ബഹുമാനിക്കുകയും അവരെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും അവർ വേദികളിൽ വരുമ്പോൾ അവരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് നിങ്ങൾക്ക് പാട്ടറിയാമോ എങ്കിലൊരു പാട്ട് പാട് എന്നും പറഞ്ഞ് അവരെക്കൊണ്ട് നാല് വരിയെങ്കിലും പാടിക്കുകയും അത് ചിലപ്പോൾ ആ ട്യൂണ് കുറവാണെങ്കിൽത്തന്നെ അവരെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കും അതുകൊണ്ട് തന്നെയാണ് എം ജീ ശ്രീകുമാറിനെ കൂട്തലിഷ്ടപ്പെടാൻ കാരണം കാരണം എന്നും ഞാൻ ആ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അങ്ങേരുടെ പാട്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അതുപോലെ അങ്ങേർ നല്ല പിച്ചിൽ പാടുകയും അത് കയ്യടിച്ചും ആ പാട്ടിനൊക്കെ ഒരുപാട് അങ്ങേർക്ക് സമ്മാനങ്ങൾ കിട്ടുകയും വാരിക്കോരി കിട്ടുകയുമൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വർഷത്തെ സേവനമുണ്ട് അതുപോലെത്തന്നെ ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ആളാണ് ഹരിപ്പാടുള്ള ആളാണ് അങ്ങേര് അങ്ങേരതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി അയാൾ പുറം രാജ്യങ്ങളിൽപ്പോയി പാട്ടുപാടുകയും അതുപോലെതന്നെ എനിക്ക് അങ്ങേരുടെ പാട്ട് കേൾക്കാനിടവന്നിട്ടുണ്ട് അടുത്തുനിന്ന് കാരണം പിന്നെ അവിടെ നല്ല ഒരു വേദിയിൽ അതായത് മാവേലിക്കരയിൽ നല്ലൊരു വേദിയിലങ്ങേരുടെ പാട്ട് വന്ന് അന്നേരം ഞങ്ങൾ എനിക്കത് കാണുവാൻ സാധിച്ചു അങ്ങേരെ എല്ലാവരും കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചു അങ്ങേരതിന് താങ്ക് യൂ പറയുകയൊക്കെ ചെയ്തു അങ്ങനെ എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കാനും നല്ല രീതിയിൽ പ്രവർത്തിക്കാനും നല്ലത് പറഞ്ഞ് കൊടുക്കുവാനും എല്ലാം അങ്ങേർക്ക് സാധിക്കും അങ്ങേരൊരു പാട്ടുകാരൻ തന്നെ അല്ലെന്നാണ് ഞാൻ പറയുന്നത് കാരണം മറ്റുള്ളവരെ നന്നാക്കിയെടുക്കാനും അവരെക്കൊണ്ട് സാധിക്കും ഇപ്പോൾത്തന്നെ ആദ്യമായിട്ട് വരുന്ന കുഞ്ഞുങ്ങളേ പേടി മാറ്റി അവരെ നല്ല രീതിയിൽ പാടിക്കാനും അവർക്ക് കഴിയുന്നുണ്ട് കാരണം അവരെ അതുപോലെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചേ മതിയാവത്തുളളൂ അങ്ങേരൊരു നല്ല ഒരു പാട്ടുകാരനും മനുഷ്യസ്നേഹിയും കൂടെയാണ് അതുപോലെ അങ്ങനെ നല്ല നല്ല പാട്ടുകൾ പാടുകയും ഞങ്ങൾക്കൊരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് എം ജീ ശ്രീകുമാർ ഞാനദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് കൊച്ചുകുട്ടികളോടുള്ള ആ പെരുമാറ്റം അവരെക്കൊണ്ട് ഡാൻസ്സ് കളിപ്പിക്കുക അവരെക്കൊണ്ട് തമാശ് പറയുക അതുകേട്ട് പൊട്ടിച്ചിരിക്കുക കൊച്ചു പിള്ളാരുടെ കൂട്ടാണ് പിന്നദ്ദേഹം വേഗം കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുക ഓടി വന്ന് സ്റ്റേജിൽ വന്ന് കുഞ്ഞുങ്ങളെ വാരിയെടുത്ത് പുണരുക അവർക്ക് ചെറിയ ചെറിയ സമ്മാനങ്ങൾ കൊടുക്കുക അങ്ങനെ ഒരുപാട് പ്രോത്സാഹനങ്ങൾ കിട്ടും കാരണം കേറുന്ന കുഞ്ഞുങ്ങൾക്ക് ടെൻഷനില്ലാതെ അവരവസാനം വരെ നല്ല ഒരു പാട്ട് അവരെക്കൊണ്ട് പാടിക്കാനും അദ്ദേഹത്തിന് വലിയ ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ടുതന്നെയാണ് അദ്ദേഹത്തെ കൂടുതലിഷ്ടപ്പെടുവാനും കാരണം എന്ന് അന്നുതൊട്ട് പാടുന്ന അന്നുതൊട്ടേ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരു ആരാധികയാണ് ഞാൻ നല്ല ഒരു മനുഷ്യനും കൂടെയാണ് പിന്നെ വേദികളിലിരിക്കുമ്പോൾത്തന്നെ അങ്ങേരുടെ ചിരിയാണെങ്കിലും നല്ല ഒരു ചിരിയാണ് കാരണം നല്ല ഒരു കൊച്ചുകുട്ടികളുടെ പോലുള്ള ചിരിയാണ് ആസ്വദിക്കാനും പാട്ടുപാടാനും അവരെ പ്രോത്സാഹിപ്പിക്കാനുമെല്ലാമായിട്ട് നല്ല മനുഷ്യനെ ഞങ്ങൾക്ക് തന്ന ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്നുമെന്നും അദ്ദേഹത്തിനായിരാരോഗ്യ സൗഖ്യം നേരട്ടെ